ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയും പ്രോൺസ് ബിരിയാണിയും ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രോൺസ് ബിരിയാണി മാത്രമേ ഉളളൂ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണ് അതില്ലാതിരുന്നത് കൊണ്ടുവരുന്ന സാധനം കറക്റ്റായിട്ട് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലായിരുന്നോ എന്തുകൊണ്ട് നിങ്ങളതു കൊണ്ടുവന്നില്ല നിങ്ങൾ കറക്റ്റായിട്ടതു കൊണ്ടുവരും എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മളത് ഓർഡർ ചെയ്യുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് കൊണ്ടുവരാതിരുന്നത് എടുത്തുകൊണ്ടുവരുന്ന സമയത്ത് സാധനങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കിയിട്ടു വേണ്ടേ കൊണ്ടുവരാൻ നിങ്ങളൊരു ഡെലിവറി ബോയിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെനിന്ന് കസ്റ്റമേഴ്സിനു കൊടുക്കുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുവേണം നിങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ഒരാവശ്യം ഉള്ളതുകൊണ്ടാണല്ലോ അത് ഓർഡർ ചെയ്തിരുന്നത് അത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ ഒരു സാധനം ഇല്ലെങ്കിൽ അത് നമുക്കത് ബുദ്ധിമുട്ടല്ലേ നിങ്ങളത് കറക്റ്റായിട്ട് എന്തുകൊണ്ട് ചെക്ക് ചെയ്ത് കൊണ്ടുവന്നില്ല നിങ്ങടെ സേവനം വളരേ മോശമാണ് നിങ്ങളുടെ